ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് പട്ടണങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒന്നുകിൽ ടാക്സി വിളിച്ച് പോവണം അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചായാലും നമുക്ക് പോവാം ഇവിടെ അധികവും സ്റ്റേറ്റ് ബസ്സാണുള്ളത് നമുക്ക് ട്രയിനോ വിമാനമോ ഇവിടെ അടുത്തൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ടാക്സി വിളിച്ച് പട്ടണങ്ങളിലേക്ക് പോവേണ്ട ഗതിയാണുള്ളത് പിന്നെ റോഡിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു ഓട്ടോ വിളിച്ചായാലും നമുക്ക് പോകാവുന്നതേ ഉള്ളൂ